ഞങ്ങളുടെ പ്രദേശമായി ബന്ധപ്പെട്ട് നിക്കുന്ന ഒരു കലാരൂപമാണ് നാടൻപാട്ട് എന്നറിയപ്പെടുന്നത് ഒരു കൂട്ടം കലാകാരന്മാർ ഒരു വേദിയിൽ അവതരിപ്പിക്കുന്ന പഴയ കാലത്തെ പാട്ടുകളും അതിനനുസരിച്ചുള്ള താള മേ താള വാദ്യങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ നാടൻപാട്ട് എന്ന് പറയുന്ന കലാരൂപം വളരെ പൗരാണികമായ കാലഘട്ടം മുതൽ തന്നെ ഞങ്ങളുടെ നാടുകളിൽ കണ്ടുവരുന്ന ഒരു കലാരൂപമാണ് ഇതിന് പ്രത്യേകമായി നാട്ടുകൂട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാടൻപാട്ട് കൂട്ടങ്ങൾ അവ ഫോക്ക്ലോർ അക്കാഡമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരുപാട് അധികം കലാകാരന്മാരാണ് ഈ നാടൻപാട്ട് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നത് കാരണം അവരുടെ ജീവിത ഉപാധി തന്നെ ഈ ഒരു കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാടൻപാട്ടിൽ അതിനോടൊപ്പം തന്നെ വിവിധ രൂപങ്ങൾ അതായത് ഗരുഡൻ്റെ രൂപം അതുപോലെ പല പല രൂപങ്ങളും കെട്ടുന്ന കലാകാരന്മാരുണ്ട് അവർക്കും ഇതൊരു ജീവനോപാധികൾ തന്നെയാണ് നാടുകളിലെ അമ്പലങ്ങളിലെ എല്ലാ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടും എല്ലാ പരിപാടികൾക്കും നാടൻപാട്ട് ഒരു പഴയകാല അനുഷ്ഠാനകല ആയിരുന്നു ഇപ്പോൾ അതൊരു കല പൂർണ്ണമായ ഒരു കലയായി മാറിയിട്ടുണ്ട് നാടൻ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മഹാരഥന്മാരായ കലാകാരന്മാർ ഉണ്ടായിരുന്നു ബാനർജി അതുപോലെ തന്നെ കലാഭവൻ മണി ഉൾപ്പെടെ ഉള്ള കലാകാരന്മാരും നാടൻപാട്ടിനെ ജനകീയം ആക്കിയവരാണ് ഒരു നാട്ട് നാടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തനത് കല എന്നു പറയുന്നത് ഒരു കലയാണ് നാടൻപാട്ട് കാരണം അത്രത്തോളം ആ ഒരു നാടിൻ്റെ ഈ പഴമയും അതിൻ്റെ ചരിത്രവുമായി എല്ലാം ബന്ധപ്പെട്ട കഥകളാണ് നാടൻപാട്ടിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് അതായത് പഴയകാല പഴയ സംഭവങ്ങളും പോരാട്ടങ്ങളും തങ്ങളുടെ പഴമ എങ്ങനെ ആയിരുന്നു എന്ന് പുതിയ തലമുറയെ അവതരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കലാരൂപമാണ് നമ്മുടെ നാടൻപാട്ട് എന്ന് പറയുന്നത് നാടൻപാട്ട് പൊതുവേ കേരളത്തിൻ്റെ തന്നെ തനത് കലാരൂപങ്ങളിൽ ഒന്നാണ് കാരണം മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും നമുക്ക് നാടൻപാട്ട് കാണാൻ സാധിക്കില്ല നാടൻപാട്ട് അവതരിപ്പിക്കപ്പെടുന്നത് തന്നെ പല വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ചെണ്ട തകിൽ തുടങ്ങിയ മുള കൊണ്ടുള്ള പല ഉപകരണങ്ങളുണ്ട് കാരണം കാതിന് ഒരേസമയം ഇമ്പവും നമ്മുടെ ശരീരങ്ങളെ ഒരേ സമയം ഉത്തേജിപ്പിക്കാനുള്ള കഴിവ് ഈ കലാരൂപത്തിനുണ്ട് കാരണം നാടൻപാട്ട് കേട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനും ചലിക്കാതിരിക്കില്ല എന്നാണ് പറയുന്നത് കാരണം അവൻ്റെ ശരീരത്തിലെ എല്ലാ പേശികളും ആ പാട്ടിനോടൊപ്പം ചലിക്കും എത്ര ഡൗൺ ആയിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും നാടൻപാട്ട് കേട്ട് കഴിയുമ്പോഴത്തെക്കും അവൻ്റെ മനസ്സ് ഫ്രീ ആകും അവൻ അതിനോടൊപ്പം തുള്ളും എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇങ്ങനെയുള്ള കാലാരൂപങ്ങൾ നമ്മുടെ നാടിൻ്റെ സ് തനത് കലാരൂപങ്ങളാണ് അപ്പം ചെയ്യുന്ന പ്രത്യേക കലാകാരന്മാരുണ്ട് ഇത് ചെയ്യാനായി പ്രത്യേക സ്ഥലങ്ങളുണ്ട് അതൊക്കെ അവർക്ക് പ്രത്യേക ക്ഷേമനിധികളും അങ്ങനെ അവരുടെ ക്ഷേമത്തിന് വേണ്ട പല കാര്യങ്ങളും സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നുണ്ട് അവരുടെ കൂട്ടം ഇത്രയും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൂട്ടരും കൂടിയാണ്